മൂന്ന് എട്ട് ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുപത്തൊന്ന് ഒമ്പത് രണ്ടായിരത്തി മൂന്ന് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഏഴ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഒന്ന് പതിനേഴ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്